ഹലോ ഹലോ അതെ സാർ പറയൂ അതെ സാർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് സാർ ഇപ്പോൾ പാസഞ്ചർ ആണോ നോക്കുന്നത് അതോ ഗുഡ്സ് കാരിയർ വെഹിക്കിൾ ആണോ പാസഞ്ചർ ആണ് അല്ലേ ഓക്കെ പാസഞ്ചർ ഇപ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ ഓൾമോസ്റ്റ് പതിനാല് പോയിൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിലാണ് വരുക പതിനാല് പോയിൻറ്റ് സംതിംഗ് വരും പിന്നെ അതിൻ്റെ എക്ട്രാ പ്ലസ് വരുന്നുണ്ട് അതിൻ്റെയും കൂട്ടിയിട്ട് ഫുൾ ഓപ്ഷനിൽ മേലിൽ ഒരെണ്ണം വരുന്നുണ്ട് അതിന് ഇപ്പോൾ നമുക്ക് ഒരു നൈൻറ്റീൻ ലാക്ക്സ് എയ്റ്റീൻ ലാക്ക്സിൻ്റെ അകത്ത് ഒരു ബഡ്ജറ്റ് വരും മ് ഇപ്പോൾ നമുക്ക് എല്ലാം ഓൺറോഡ് പ്രൈസ് ആണ് പറയുന്നത് മ് അത് നമ്മൾ കമ്പനിയിൽനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഇൻഷുർ ഫസ്റ്റ് വരുന്നത് പിന്നെ ഓരോ വർഷം കൂടുമ്പോൾ നിങ്ങൾ ഇത് ആക്കിക്കൊണ്ട് ഇരിക്കണം റിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കണം പുതുക്കണം റിന്യൂ യ് ബംബർ ഉണ്ടാവുള്ളൂ ബാക്കി നമുക്ക് ഫുൾ കവർ ആയിട്ടാണ് വരുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ ബംബർ ടു ബംബർ മൈന്റൈൻ ചെയ്യുവാണെങ്കിൽ ചെറിയ എമൗണ്ട് അടച്ചിട്ട് മൈന്റൈൻ ചെയ്യാൻ കഴിയും

ഓക്കെ കളർ ഇപ്പോൾ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് കോഫി ബ്രൗൺ വരുന്നുണ്ട് പിന്നെ ഒരു സിൽവർ വരുന്നുണ്ട് പിന്നെ ഒരു എന്താണ് പറയുക ഒരു ഗ്രീനിഷ് പോലെ തോന്നുന്ന ഒരു സിൽവർ ടൈപ്പ് ഒരു കളറും കൂടെ വരുന്നുണ്ട് പിന്നെ റെഡ് ഉണ്ട് ആ ഫുൾ ഓപ്ഷനിൽ വരുന്നത് ആണ് റെഡ് ഉണ്ടാവും ഫീച്ചേഴ്സ് ഇപ്പോൾ നമുക്ക് പവർ വിൻഡോ ഉണ്ടാവും പിന്നെ എ സി സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉണ്ട് ഫുൾ ഓപ്ഷൻ മാത്രമേ വരുള്ളൂ ഫുൾ ഓപ്ഷനിൽ എക്സ്ട്രാ പ്ലസ്സിലും ആ ഈ അതായത് ഈ ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോറൂമിൽനിന്നുതന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരിക്കും നമുക്ക് യെസ് ബാങ്ക് വെരുന്നുണ്ട് കാനറയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ നോക്കാം കാനറയിൽ ഇപ്പോൾ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ചെയ്തുതരാം മ് ആ നമുക്ക് ഇപ്പോൾ നൈൻറ്റി പെർസെൻറ്റേജ് വരെ ലോൺ കിട്ടും സാർ അപ്പോൾ ആ ഒരു ലക്ഷത്തിനാൽപതിനായിരം രൂപയുടെ അടുത്ത് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് തന്നാൽ മതിയാവും ആ ബുക്ക് ചെയ്യാൻ ഫൈവ് തൗസൻഡ് തന്നാൽ മതി സാർ ആ പിന്നെ വണ്ടി എടുക്ക് കിട്ടുന്നതിന്റെ വൺ മന്ത് ആണ് നമ്മൾ ടൈം പറയുന്നത് വൺ മന്ത് ആണ് നമുക്ക് ഇപ്പോൾ ടൈം വരുന്നത് കാരണം വണ്ടി നമ്മൾ ഓർഡർ അനുസരിച്ച് ആണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അതിപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ സാ ഏത് കളറാണോ നോക്കുന്നത് ആ കളറിന് അനുസരിച്ച് ആണ് നമ്മൾ വണ്ടീൻ്റെ ഇത് നോക്കുന്നത് കളർ ഏതെങ്കിലും ഷോറൂമിൽ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് എത്തിക്കാൻ പറ്റും ഓക്കെ വൈറ്റ് നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം സാർ ഏതെങ്കിലും ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്തിച്ചുതരാം പെട്ടെന്ന് തന്നെ എത്തിച്ചുതരാം ഓക്കെ നാളെ സാർ വന്നോളൂ നമുക്ക് എന്നാൽ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ സാർ